അതെ ആ പറഞ്ഞോ ജീജാ നമുക്ക് അത് ഫുൾടൈമ് നമുക്ക് എല്ലാദിവസവും ഉച്ചക്കുശേഷം പിള്ളേർക്ക് നമുക്ക് പ്രാക്ടീസിന് സമയം കൊടുത്താലോ ഒരു ഇൻറ്റർവെല്ലിന് ശേഷം ഒരു മണിക്കൂറ് ആ രണ്ടര തൊട്ട് മൂന്നര വരെ കൊടുക്കാം അത് പോര എങ്കിൽ നമുക്ക് ആ വൈകുന്നേരം നാലുമണിക്ക് ശേഷം പിള്ളേർ ഒരു മണിക്കൂറ് നിൽക്കാൻ പറയാം ആ സിംഗിള് ഐറ്റം അവർ പ്രാക്ടീസ് ചെയ്തോട്ടെ ഗ്രൂപ്പ് ഐറ്റം നമുക്ക് അല്ലാതെ പിള്ളേർക്ക് നമുക്ക് അത് പറഞ്ഞുകൊടുക്കാം ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിട്ടെ മ് അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് അല്ല ഓരോ ഗ്രൂപ്പിന് നമ്മൾ ടീച്ചർമാര ടീച്ചേഴ്സിനെ നമ്മൾ അലൗട്ട് ചെയ്തിട്ടുണ്ടല്ലോ അവരുതന്നെ അവരെയങ്ങ് പഠിപ്പിക്കുന്നതല്ലേ നല്ലത് ആ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സിംഗിൾ ഐറ്റംസ് പിന്നെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഐറ്റംസ് നമ്മൾ കഴിഞ്ഞവർഷം പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാം ഒപ്പനയും തിരുവാതിരയൊക്കെ നമ്മൾ കഴിഞ്ഞവർഷം നമ്മൾ സ്കൂളിൽനിന്ന് നടത്തിയതാണല്ലോ അത് കുട്ടികൾക്ക് ഇപ്പഴും ആ നല്ല പ്രോഗ്രാം ആയിരുന്നല്ലോ കുട്ടികൾക്ക് അത് ഇൻട്രെസ്റ്റ് ആണ് ഒപ്പന പിന്നെ സംഘഗാനം മാർഗംകളി ഇങ്ങനെ കൊടുത്താൽ നമുക്ക് വെറൈറ്റി ആയിരിക്കും കുട്ടികൾക്കത് താല്പര്യമാണ് ടീച്ചറെ അഭിപ്രായം എന്താ ആ അതെ ഉണ്ട് മ് ഓക്കെ ഓക്കെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു നമുക്ക് ഇതൊന്ന് പേരൻസിനെ അറിയിക്കേണ്ടേ

ഓക്കെ നമുക്ക് ഇത് നടത്തിയിട്ട് നമുക്ക് ജില്ലയിലേക്ക് പോകാനായിട്ട് പിള്ളേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളല്ലോ അപ്പം മാക്സിമം പിള്ളേരെ നമ്മൾ പങ്കെടുപ്പിക്കുക മ് ആ എന്നാൽ ശരി ടീച്ചറെ ഓക്കെ